നമ്മുടെ മലയാള ഭാഷയിൽ നമ്മുടെ പല രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ അവരെ അവിസംബോധന ചെയ്യുന്നത് നമസ്കാരം ഹലോ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ ഹായ് എന്നുള്ള വാക്കുകൾ വെച്ചാണ് അതിലുപരി നമ്മളിപ്പം ഒരു ഭവനത്തിലേക്ക് കയറിച്ചെല്ലുകയാണെങ്കിൽ അവരെ നമ്മൾ അവിസംബോധന ചെയ്യുന്നത് ഹലോ എന്തൊക്കെയുണ്ട് സുഖമല്ലേ എങ്ങനെയുണ്ട് എല്ലാവർക്കും സുഖമാണോ അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖമാണോ എന്നുള്ള രീതിയിലാണ് നമ്മളെ അവിസംബോധന ചെയ്യുന്നത് അതിലുപരി നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ചില മലയാള ഭാഷയിലെ പൊതുവായ പദപ്രയോഗങ്ങളാണ് എന്ത് എവിടെ എങ്ങനെ ഞാൻ ഇതാ എൻ്റെ നിൻ്റെ അവൾ ഇവൾ അവൻ ഇവൻ എപ്പോൾ സമയം എന്തായി അങ്ങനെ കുറേ പല പ്രയോഗങ്ങൾ നമ്മൾ ഈ മലയാള ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട് അതുപോലെതന്നെ ചില പൊതുവായ പദപ്രയോഗങ്ങൾ എന്നു പറയുന്നത് എൻ്റേത് നിൻ്റേത് ബാക്കി മിച്ചം എനിക്ക് തരാമോ അതൊന്നിങ്ങോട്ട് കൈമാറാമോ എന്നൊക്കെ ചോദിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ദൈന്യംദിന ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന പദപ്രയോങ്ങൾ അതിലുപരി ഈ ഒരു സാധനം എനിക്ക് തരികയാണ് ഞാൻ അവരോട് നന്ദി നന്ദി പറയുന്നത് ഒരു എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു പദപ്രയോഗത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വരും ഇപ്പം എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പദപ്രയോഗം എന്നു പറയുമ്പോൾ അത് പലരീതിയിലുണ്ടായേക്കാം ചിലപ്പോൾ നമ്മളൊരാളോട് ദേഷ്യപ്പെടുന്നതായിരിക്കാം ചിലപ്പോൾ ഒരാളോട് നമ്മൾ സംസാരിക്കുന്നതായിരിക്കാം നമ്മൾ ഫോൺ വിളിക്കുമ്പോഴും നമ്മൾ സാധാരണ സംസാരിക്കുമ്പോഴും നമ്മൾക്ക് ഒരു നമ്മൾ മറ്റുള്ളവരെ അവിസംബോധന ചെയ്യുന്ന പല രീതികളിലാണ് അത് ഓരോ രീതിയനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും അതിപ്പം മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും നമ്മൾ പൊതുവായി യൂസ് ചെയ്യുന്ന കുറേ അഭിസംബോധനകൾ ചില പൊതുവായ പദപ്രയോഗങ്ങൾ ഇതൊക്കെയാണ്